നമ്മുടെ അടുത്ത് പുരാതനമായ ഒരു സ്ഥാപനമുള്ളത് എന്നു പറയുന്നത് കൂട്ടുകൽ ഗുഹാക്ഷേത്രമാണ് ഈ കൂട്ടുകൽ ഗുഹാക്ഷേത്രം പുരാവസ്തു ഏറ്റെടുത്തതാണ് പ്രാചീനകാലത്ത് ഒരു മിത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂട്ടുകൽ ഗുഹാക്ഷേത്രം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ചടയമംഗലം ജഡായുപ്പാറ വരുന്നത് പിന്നെ ഇതിനെ കണക്ടിവിറ്റിയായിട്ട് ജഡായുപ്പാറയും കുട്ടകൽ ഗുഹാക്ഷേത്രവും കുടുക്കത്ത് പാറയും അടങ്ങുന്ന ഒരു പാക്കേജ് ടൂറിസം കൊണ്ടുവന്നിട്ടുണ്ട് വിനോദസഞ്ചാരത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഈ മൂന്ന് സ്ഥലങ്ങൾ കൊല്ലം ജില്ലയുടെ ഒരു പ്രത്യേക അഹങ്കാരം തന്നെയാണ് കൊടുക്കത്ത് പാറ എന്നത് ഏറ്റവും ഹൈറ്റിൽ സ്ഥിതിചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്നാൽ നാലു ജില്ലകൾ കാണാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഗുഹാക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അതൊരു പാറയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് ജഡായുപ്പാറ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പിന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ജില്ലയാണ് കൊല്ലം ജില്ല അതിൽ കായലുകളും കടലുകളും എല്ലാമുണ്ട്